കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ലാൻഡ് മാർക്കെന്ന് പറയുകയാണെങ്കിൽ കോഴിക്കോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് അതായത് മുൻസിപ്പാലിറ്റികൾ വരുന്നത് ഉള്ളൊരു ജില്ലയാണ് വടകര കൊയ്ലാണ്ടി താമരശ്ശേരി കോഴിക്കോടെന്ന് പറഞനഞ്ഞാൽ നാല് മുൻസിപ്പാലിറ്റികൾ വരുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് കോഴിക്കോടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറമു ഏറ്റവും പിന്നെ എന്താ പുരോഗമനത്തിൽ മൂന്നാമതിരിക്കുന്നൊരു തുറമുഖം അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ചരക്ക് പണ്ട് തൊട്ടേ വളരെ പുരോഗമനത്തിലെന്നല്ല എല്ലാം കൊണ്ടും ഏറ്റവും ഹൈയ്യിൽ നിൽക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ് മാർക്കുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് കാലിക്കറ്റ് ഹൈപ്പ് ലൈറ്റ് മാൾ പിന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പിന്നെ കാലിക്കറ്റ് മിനി ബൈ പാസ്സ് കക്കയം വാലി ചാലിയം തുറമുഖം കോഴിക്കോട് ബീച്ച് ഐ എം ഐ ഐ എം കോഴിക്കോട് കാലിക്കറ്റ് ബീച്ച് സ്കൈ ലൈൻ അങ്ങനെ കുറേ ഉണ്ട് നമുക്ക് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ കുറേ ടെംപിളുകൾ ഉണ്ട് മറ്റേ കോട്ടയുണ്ട് അപ്പം ഇതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ലാൻഡ് മാർക്കുകളാണ് പിന്നെ കൂടുതലാൾക്കാർ പിന്നെ വന്നിരിക്കുന്നത് എളുപ്പം കൂടുതലും ബീച്ചുകളിൽ പിന്നെ ഹൈപ്പർ മാൾ ഈ വലിയ വലിയ മാളുകളിലൊക്കെയാണ് ആൾക്കാർ ഇട ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത് പിന്നെ എല്ലാ സ്ഥലത്തേക്കും പ്രവേശനം ഉണ്ട് കേട്ടോ പ്രവേശനം ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ് കോഴിക്കോട് ജില്ലയിൽ എല്ലാ സ്ഥലത്തും നമുക്ക് പോകാൻ പറ്റും